അ ഹലോ

ആ അതെ അതെ എന്താ എന്താ ടീച്ചറേ വിളിച്ചത് ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി ഓ സത്യം ഓ സത്യം ടീച്ചറേ ഇവിടെ പിള്ളേരൊക്കെ ഓ ഇവിടെ പിള്ളേർ ഇവിടെ പിള്ളേർ വന്ന് ഓരോന്നക്കെ ചോയ്ക്കുമ്പഴത്തേക്കും പുതിയ സിലബസ്സ് അല്ലെ അങ്ങോട്ട് എന്താ ഒന്നും അങ്ങോട്ട് മനസ്സിലാ ആ അങ്ങ് ആ നമ്മൾ പഠിച്ച പോലെ ഒന്നും അല്ലല്ലോ ഇതൊക്കെ ഭയങ്കര പാടല്ലേ ആ

ഓ ആ ആ ടീച്ചറേ ഞാൻ ആ ആ ടീച്ചറേ ഞാൻ അവ ഇപ്പം എന്താ സ്കൂളിൽനിന്ന് തരുന്ന നോട്സ്സും പിന്നെ എന്താ അവരുടെ ടെക്സ്റ്റിലുള്ള അതേ സാധനം തന്നെയാ പഠിപ്പിക്കുന്നത് പിന്നെ മാത്സ്സ് ഇപ്പം ഇക്ക്വേഷൻ മിസ്സ് ഇടുന്ന ഇക്വേഷൻ അല്ലായിരിക്കും ഞാൻ കുറച്ചുംകൂടെ അവർക്ക് കുറച്ചുംകൂടെ എളുപ്പമായിട്ട് അങ്ങനെയാണ് ഇടുന്നത് പക്ഷെ രണ്ടുംകൂടെ പിള്ളേർക്ക് അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ അതെ അതെ രണ്ടുംകൂടെ ആ ആ ആ ആ ഓക്കെ ഓക്കെ ഞാൻ ആണെങ്കിൽ ഞാൻ ആണെങ്കിൽ കുറച്ച് അവർ അമ്മമാർ എന്നോട് പറഞ്ഞായിരുന്നു പിള്ളേർക്ക് മാത്സ്സ് കുറച്ച് പാടാണ് എന്ന് അപ്പോൾ ഞാൻ എന്താ ചെയ്തത് എന്ന് വെച്ചാൽ ഞാൻ കുറച്ചുകൂടെ സിമ്പിൾ ഇക്ക്വേഷൻ അവർ സിമ്പിൾ ഇക്ക്വേഷൻ അപ്പം ഈ സ്റ്റെപ് കുറവാണ് അതാണ് പ്രശ്നം അല്ലേ ആ ആ അയ്യോ അയ്യോ അതൊന്നും കുഴപ്പം ഇല്ല മിസ്സ് പറഞ്ഞോ എനിക്ക് അപ്പോൾ അത് കൂടുതലും ഇമ്പ്രൂവ് ചെയ്യാമല്ലോ ആ ആ പഠിപ്പിക്കാം മിസ്സേ പഠിപ്പിച്ചേക്കാം പഠിപ്പിച്ചേക്കാം അപ്പം ഈ ഞാൻ അയ്യോ അറിയാം ആ ആ നമ്മൾ ഇതൊക്കെ എന്നും കാണുന്നത് അല്ലേ അതെ അതെ അതല്ല മിസ്സേ ഈ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പിള്ളേർക്ക് ഈ സ്റ്റപ്പ് തീരെ അങ്ങ് ഓർത്തിരിക്കുന്നില്ല മറ്റേ ആ ഇക്ക്വേഷൻസ്സ് ഇക്ക്വേഷൻ അത് എങ്ങനെയാ ചെയ്യുന്നത് എന്നും ചില പിള്ളേർക്ക് ഒന്നും മറ്റേ നമുക്ക് ഗുണിക്കാനും അങ്ങനെപോലും അറിയാത്ത കുറേ പിള്ളേർ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് അപ്പം ഞാനവർക്ക് ആ അതേ അതെ അതെ അതെ ആ ആ ആ അതേ ആ ആ ആ ഇല്ലില്ല എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഇത് മാർക്ക് എന്ന് പറയുമ്പം എല്ലാ സ്റ്റെപ്പിനും ഒക്കെ മാർക്ക് ഉണ്ടല്ലോ അപ്പം അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓ ശരി മിസ്സേ ആ ഷുവർ ഷുവർ ഷുവർ മിസ്സോ ആ ശരി മിസ്സേ എന്നാൽ ഉം